മലയാള ഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിക്കുന്നതിനുമായിട്ട് വിവിധ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ശ്രമങ്ങളിതൊക്കെയാണ് വിദ്യാഭ്യാസം സ്കൂളുകളിലും കോളേജുകളിലും മലയാള പഠനം നിർബന്ധമാക്കാം പിന്നെ സാഹിത്യ സേവനങ്ങൾ അതായത് കേരള സാഹിത്യ മിഷൻ കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം നടത്താറുണ്ട് പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള അത് മലയാളം വിവരണതകൾക്ക് സംരംഭങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ഭാഷയുടെ പ്രചാരണം വർദ്ധിപ്പിക്കാം പിന്നെ സാംസ്കാരിക സംഘടനകൾ ഇതുവഴി നടക്കുന്ന പ്രവർത്തനങ്ങളും ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് വളരെയധികം നല്ലൊരു പങ്കാണ് വഹിക്കുന്നത് പിന്നെയുള്ളത് സർക്കാർ പദ്ധതികൾ കേരള സർക്കാരിൻ്റെ ഭാഷ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതായ പ്രത്യേക പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നുണ്ട് പിന്നെ മാധ്യമങ്ങൾ മലയാള പത്രങ്ങൾ മാസികകൾ എന്നിവയും ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വളരെയധികം വഹിക്കുന്നെ നമുക്ക് ഇതിൽ പങ്കാളികളാവാൻ പറ്റുന്ന മാർഗങ്ങള് ഏതാണെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ചിലതൊക്കെ ഇതൊക്കെയാണ് സമൂഹമാധ്യമങ്ങൾ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും വായന പ്രോത്സാഹനം വഴി നമുക്ക് പുതിയ പുസ്തകങ്ങളും അതേപോലെയുള്ള ബാക്കിയുള്ളതും നമുക്ക് മലയാളത്തിൽ വായിച്ചു പഠിച്ച് മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും പിന്നെ സ്ഥാപനങ്ങളിലൂടെയുള്ള സഹകരണം സാംസ്കാരിക സംഘടനകളുമായി സഹകരിക്കാൻ പറ്റും പിന്നെ മലയാളം ക്ലാസുകൾ മലയാളം പഠിക്കുന്നതായി ക്ലാസുകളിൽ ചേരാൻ പറ്റും നമുക്ക് ലേഖനങ്ങൾ കവിതകൾ കഥകൾ എന്നൊക്കെ വായിച്ച് മലയാളത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെയുള്ള പ്രതിവിധികൾ സർക്കാർ സ്വകാര്യസ്ഥാപനങ്ങൾ വഴിയുള്ള ഭാഷാ വികസന പദ്ധതികളിൽ നമുക്ക് പങ്കാളികളാവാൻ പറ്റും സ്വതന്ത്ര യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാനും പറ്റും ഇതൊക്കെയാണ് മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാനായി നമുക്ക് ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങൾ